ഇന്ത്യയിലെ തന്നെ അറിയപ്പെടണ ഒരുപാട് യോഗ ഗുരുക്കളുണ്ട് തിരുമലൈ കൃഷ്ണമാചാര്യ അദ്ദേഹം അതുപോലെ തന്നെ ബി കെ എസ് അയ്യങ്കർ സദ്ഗുരു ബാബ രാംദേവ് അങ്ങനെ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള യോഗ ഗുരുക്കളുണ്ട് പിന്നീട് എല്ലാവർക്കും യോഗ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു മനസിനും ശരീരത്തിനും ഒരു ആശ്വാസമാണ് അല്ലെങ്കിൽ നമ്മുടെ നിത്യ ജീവിതത്തിലുള്ള നമ്മളുടെ ആ ഒരു സമ്മർദ്ദം പിരി മുറുക്കം എല്ലാത്തിൽ നിന്നും ഒരു ആശ്വാസം കണ്ടെത്തുന്നത് നമ്മൾ യോഗയിലൂടെയാണ് തീർച്ചയായും യോഗ എന്ന് പറയണത് ശരീരത്തിന് ഒരുപാട് ഗുണമുള്ള കാര്യമാണ് അങ്ങനെ ഞാനും കുറച്ചൊക്കെ യോഗ ചെയ്യുന്ന ഒരാളായിരുന്നു കോവിഡ് കാലഘട്ടത്തിലൊക്കെ കുറച്ച് കൂടി യോഗ ചെയ്യണം കുറച്ചും കൂടി ആരോഗ്യം സംരക്ഷിക്കണം അല്ലെങ്കിൽ ആരോഗ്യം നേരെ നോക്കണം എന്നൊക്കെ രീതിയിൽ ചെയ്തിരുന്നു പിന്നീട് ഞാൻ അത് തുടർച്ചയായി ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ അങ്ങനെ അത് ചെയ്യാറില്ല തീർച്ചയായും യോഗ ചെയ്തതിന് ശേഷം കുറച്ച് നമ്മൾ കുറച്ച് കാലം നമ്മൾ തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അതിനുള്ള മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് തീർച്ചയായും എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് കുറച്ചും കൂടി എനിക്ക് ക്ഷമ കുറച്ചും കൂടി എൻ്റെ ഉള്ളിലുള്ള ദേഷ്യം കുറച്ച് എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുക അതുപോലെത്തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടന്ന് എന്താ പറയുക മനസിലാക്കാനുള്ള ഒരു കഴിവ് ശരീരത്തിന് കുറച്ച് ഒരു ശരീര ക്ഷമത കുറച്ചും കൂടി ശരീരം കുറച്ചും കൂടി നമ്മൾ കുറച്ചും കൂടി ശരീരം പ്രവർത്തിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ശരീരത്തില് ദേഹം കുറച്ച് വിയർക്കുന്ന സമയത്ത് അതിൻ്റെതായ ശരീരത്തില് ഒരു ഒരു ബലം ലഭിക്കുന്നതായിട്ട് സ്വയം തോന്നിയിട്ടുണ്ട് അങ്ങനെ യോഗ പല രീതിയില് എല്ലാവർക്കും നല്ലത് തന്നെയാണ് നമ്മുടെ കോൺസെൻട്രേഷൻ അതുപോലെത്തന്നെ നമുക്ക് ശരീരത്തിന് വേണ്ട ഒരു ആരോഗ്യം അതെല്ലാം യോഗയിലൂടെ തരാൻ സാധിക്കും